ഇപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉയർന്ന് വരുന്നൊരു കാലഘട്ടമാണ് നമുക്ക് മുന്നിലൂടെ കടന്ന് പോകുന്നത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം നമ്മുടെ പാരമ്പര്യവും കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും കടന്ന് പോകുന്നത് പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ പണ്ട് ഉള്ളവരുടെ ഒരു ശീലവും കാര്യങ്ങളും ഇപ്പം പണ്ടുള്ളവര് പറയും നമ്മക്ക് ഇപ്പം കല്യാണം കഴിച്ച് വീട്ടില് പോയതിന് ശേഷം നാലാമത്തെ ദിവസം പെണ്ണിൻ്റെ വീട്ടിലേക്ക് വിരുന്നിന് പോകണം അങ്ങനെയൊക്കെയാണ് ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ അതൊക്കെ ഇപ്പോഴും ആൾക്കാര് കൊണ്ട് നടക്കുന്നുണ്ടെന്നാണ് പറയാനുള്ളത് അപ്പം അതൊരു നല്ല രീതിയിലുള്ളൊരു പ്രവണതയും കാര്യങ്ങളൊക്കെ ആണ് ഇപ്പൊഴും കൊണ്ട് നടക്കുന്നതെന്ന് വേണെങ്കി പറയാൻ പറ്റും അപ്പോൾ അത് അതിനനുസരിച്ച് നമുക്ക് നല്ല രീതിയില് ചെയ്യാൻ വേണ്ടീട്ടും സാധിക്കുന്നെയാണ് പിന്നെ നമ്മടെ സംസ്കാരം കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ് പിന്നേന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം യന്ത്രവത്കരണവും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് ഇപ്പോൾ നമുക്കിപ്പോൾ റോട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ പല രീതിയിലുള്ള വണ്ടികളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ഒരാൾക്ക് തന്നെ രണ്ടും മൂന്നും വണ്ടിയൊക്കെയാണ് ഉള്ളത് അപ്പോൾ അതൊക്കെ വന്ന ഒരു കാര്യാണ് ഇപ്പോൾ നമ്മുടെ കയ്യില് മൊബൈൽ ഫോൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയില് ഉയർന്ന് വന്നിട്ടുണ്ട് നമുക്ക് പണ്ടത്തേക്കാളും ഇപ്പം